ഒരു സഹോദരിക്ക് സാരിയുടെ അടിയിൽ പിടിപ്പിക്കുന്ന ഫോള് പിടിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് സാരി ഫോൾ പിടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തയ്യൽ മെഷീനിൽ സ്റ്റിച്ചിങ് അറിയാം എന്നല്ലാതെ കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഫോൾ പിടിപ്പിക്കൽ പരിപാടി കൈത്തയ്യൽ എനിക്ക് അത്ര വശമില്ല എന്നാൽ അത് തയ്ക്കാനായിട്ട് ഏൽപ്പിച്ച ചേച്ചിക്ക് അത് തയ്ക്കാനായിട്ട് സമയവും ഇല്ല പക്ഷേ ഈ തന്നിരിക്കുന്ന ആൾക്ക് കൃത്യസമയത്ത് ഇത് കൊടുക്കുകയും വേണം വളരേ ആലോജിച്ച ശേഷം ഏതായാലും ഇത് ചെയ്യാമെന്നുള്ള ഒരു കണക്കിൽ കണക്കു കൂട്ടലിൽ ഞാൻ അത് ചെയ്ത് തുടങ്ങി ആദ്യമേ ഒരു ഫോൾ പിടിപ്പിച്ച ഒരു സാരി എടുത്തു വച്ചു അതിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കി എത്ര അകലം തൊട്ടാണ് ഇത് പിടിപ്പിച്ച് തുടങ്ങേണ്ടത് എന്ന് ഒക്കെ നോക്കി മനസ്സിലാക്കി രണ്ടു വശവും ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ട് തന്നെ തുന്നി പിടിപ്പിക്കണം അങ്ങനെ വളരെ പണിപ്പെട്ട് അടിപ്പിച്ച് അടുപ്പിച്ച് തുന്നൽ ഇടണം എന്നാൽ ആ തുന്നൽ വളരെ മുറുക്കമുള്ളതായിരിക്കണം ഫോള് പിടിപ്പിച്ച് കഴിയുമ്പോൾ സാരിയും ഫോളും കൂടെ ഒരേ ലെവെലിലും നിൽക്കണം ഫോള് സാരിയിൽ നിന്ന് തൂങ്ങി നിൽക്കാനോ ആ പൊങ്ങി നിൽക്കാനോ പാടില്ല അയൺ ബോക്സ് ഉപയോഗിച്ച് നന്നായി തേച്ച് സാരിയും ഫോള് പിടിപ്പിക്കുന്ന ആ ഫോളും എല്ലാം തേച്ച് വൃത്തിയാക്കി ഭംഗിയാക്കിയതിന് ശേഷം തുന്നി പിടിപ്പിക്കാൻ തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ എടുത്താണ് ഞാൻ ആ സാരിയുടെ ഫോള് പിടിപ്പിച്ചത് വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ഇട്ട് തയ്യലിട്ട് ഓരോ തയ്യലിലും കെട്ടിട്ട് അഴിഞ്ഞു പോവാത്ത രീതിയിൽ വളരെ ഭംഗിയാക്കി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു